ഞാൻ കൂടുതലായിട്ടും പ്രിഫർ ചെയ്യണത് വോയിസ് കോളുകളാണ് വീഡിയോ കോളുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് കംഫർട്ടബിലിറ്റിയും നമ്മുടെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കേണ്ടതുണ്ട് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ നമ്മളിപ്പോൾ ഒരു ട്രാവൽ ചെയ്തു കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് വീഡിയോ കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല അത് ഇതൊരു ചെറിയ ഒരു എക്സാമ്പിൾ മാത്രം ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ടാവും അപ്പോൾ വോയിസ് കോളുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും അറ്റൻറ് ചെയ്യാം ഈവൺ നമ്മളൊരു യാത്ര ചെയ്യുകയാണെങ്കിലും നമ്മൾ വേറൊരു തിരക്കിൽ ആണെങ്കിൽക്കൂടി ഹെഡ് സെറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വേറെ ഒരു തിരക്കിൽ ആണെങ്കിൽ കൂടിയിട്ട് സിംപിളായിട്ട് നമുക്ക് അവര് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ ഏൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് വോയിസ് കോൾ പറയുമ്പോൾ പറയുമ്പോൾ പിന്നെ ആർക്ക് എവിടെ വന്ന് നിന്ന് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും സംസാരിക്കാനുള്ള ഒരു ഒരു ഒരു ഒരു പ്രൈവസി അത് ഈ വോയിസ് കോളുകളിലുണ്ട് വീഡിയോ കോൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിനായിട്ട് നിൽക്കണം മീൻസ് നമുക്ക് ഒരു ഹെഡ് സെറ്റ് യൂസ് ചെയ്തിട്ട് കോൺവെസേഷൻ കണ്ടിന്യൂ ചെയ്യാൻ ഒന്നും പറ്റില്ല നമുക്ക് അവരെ കണ്ടുകൊണ്ടിരിക്കാം അപ്പോൾ അതിൻ്റെതായ രീതിയിൽ നമ്മൾ എല്ലാം കീപ്പ് ചെയ്യേണ്ടി വരും പിന്നെ പിന്നെ എന്താ പറയുക വീഡിയോ കോൾ പറയുമ്പോൾ നമുക്ക് നമ്മൾ എല്ലാ എല്ലാവർക്കും എല്ലാവരുമായിട്ട് കംഫർട്ടബിൾ ആവണമെന്നും ഇല്ല ഇപ്പോൾ വീഡിയോ കോൾ മാത്രം ചെയ്യാൻ പറ്റുള്ളൂയെന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു എന്താ പറയുക നമ്മൾ നമ്മളെ ഫാമിലി റിലേറ്റീവ്സിനോട് സംസാരിക്കുന്ന പോലെ ആവില്ല നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനോട് സംസാരിക്കുന്നത് അപ്പോൾ ആ ഒരു ഡിഫറെൻസ് ഒക്കെ നമുക്ക് ഈ ഒരു വീഡിയോ കോൾ ചെയ്യുമ്പോൾ നമുക്ക് നഷ്ടപ്പെടാറുണ്ട് ഒരു പ്രൈവസി ഇഷ്യൂ തന്നെയാണ് വലുതായിട്ട് എടുത്ത് പറയാനുള്ളത് ഇപ്പോൾ കൂടുതലായിട്ടും വോയിസ് കോളുകളോടാണ് താല്പര്യം പിന്നെ പിന്നെ ഫോൺ എത്ര സമയം നമ്മൾ യൂസ് ചെയ്യുമെന്നുള്ളത് അത് ഓരോ സിറ്റുവേഷൻസ് അനുസരിച്ചിരിക്കും നമ്മളിപ്പോൾ ഡെയ്ലി വീട്ടിൽ ഇരിക്കുകയാണെന്ന് ഉണ്ടെങ്കിൽ ഫോണിൻ്റെ യൂസേജ് സ്വാഭാവികമായിട്ടും കൂടിക്കൊണ്ടിരിക്കും നമ്മളിപ്പോൾ അല്ലെങ്കിൽ ഒരു വർക്കിന് പോകുന്നുണ്ടങ്കിൽ കോളേജ് കയറിയാൽ പഠിക്കുക അങ്ങനെ വല്ല കാര്യങ്ങൾ ആണെന്നുണ്ടെങ്കിൽ നല്ലോണം കുറവായിരിക്കും കാരണം നമ്മളൊരു ഡേയുടെ ഒരു മുക്കാൽ ഭാഗവും നമ്മള് എവിടെയോ സ്പെൻഡ് ചെയ്യുന്നുണ്ടാവുക അപ്പോൾ നമ്മളെ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മള് വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെയാണെങ്കിൽ മൊബൈൽ ഫോണിന്റെ യൂസേജ് കുറവായിരിക്കും